ഞാനായോ ആയോധന കല പരിശീലിക്കാൻ തുടങ്ങിയത് ആറ് വയസ്സിലാണ് ആ പ്രായത്തിൽ ഞങ്ങളുടെ വീട്ട് കുടുംബങ്ങളിലെ ഏറ്റോം പ്രായം ചെന്ന ആൾക്കാർ ഒരുപാട് ചിട്ടകൾ ഞങ്ങളെ നിർബന്ധമായും ചെയ്യിപ്പിച്ച് ശീലിപ്പിച്ചിരുന്നു അതായത് അതി രാവിലെ എണീറ്റ് എണ്ണ തേച്ച് കുളിച്ച് അമ്പലങ്ങളിൽ പോയി തൊ അമ്പലം അല്ലേ പള്ളിയിൽ പോയി തൊഴുത് വീട്ടിൽ വന്ന് പിന്നീട് ആയോധന കലകൾ പരിശീലിക്കുന്ന കളരിയിൽ പോയി അവിടുത്തെ ഉപദേവതാ മൂർത്തിയെപ്പോയി തൊഴുത് ആയോധനകലകൾ പരിശീലിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ പോവുക പിന്നീട് സ്കൂളിൽ കൂട്ടുകാരും ഒത്ത് പഠിച്ചും കളിച്ചും ഉച്ച ഊണിന് കിട്ടുന്ന ഇൻട്രവെല്ലിൽ അടുത്തുള്ള ആ സമയത്തുണ്ടാവുന്ന കായ് കനികളൊക്കെ കഴിച്ച് അതായത് ചക്ക മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിച്ചും പിന്നെ കൂട്ടുകാരൊത്ത് കളിച്ചുവൊക്കെ സമയം അങ്ങനെ ചിലവിട്ടിരുന്നു സ്കൂളിലവധി വരുമ്പോൾ ഒന്നില്ലങ്കിൽ ഏതെങ്കിലും തീർഥാടനകേന്ദ്രങ്ങളിൽ വീട്ടുകാരുമായി പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കാരുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം വെക്കേഷൻ താമസിച്ച് വരുക അങ്ങനെയൊക്കെ സമയങ്ങളങ്ങനെ പോയിരുന്നു ആ കാലം